പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ അതുമായിട്ട് അതിന് ചുറ്റുമായിട്ടുള്ള മരങ്ങൾ പുഷ്പങ്ങൾ ഇതൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതാണ് ഒരു പൂന്തോട്ട പരിപാലനം ഒരു വിനോദ വൃത്തിയായി ഏറ്റെടുക്കാനായിട്ടും അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുമുള്ള കാരണം തീർച്ചയായും നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുകാന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് മുൻപത്തേക്കാൾ കൃഷി പൂന്തോട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൂന്തോട്ട പരിപാലനം ഒരു തുടക്കമായി തന്നെ കാണാവുന്നതാണ് അതുകൊണ്ടു തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് അത് അതുകൊണ്ടു തന്നെ നമ്മുടെ ഏതൊരു വീടിനു ചുറ്റുപ ചുറ്റുപാടായി ഉള്ള സ്ഥലത്ത് നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങളും അടുക്കളത്തോട്ടങ്ങളും ഉണ്ടാക്കുന്നത് പ്രകൃതിയ്ക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് മാനസിക ഉല്ലാസത്തിനും വളരെയധികം സഹായകരമായ ഒന്നാണ് അതാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പൂന്തോട്ടം പരിസ് പരിപാലനം എന്നുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെടാൻ എന്നെ പ്രാപ്തനാക്കിയത് അല്ലെങ്കിൽ പ്രചോദനമായിരിക്കുന്നത് ഇനിയും മുമ്പോട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർന്നു പോകുന്നതിനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇത്തരം മാനസികമായ ഉന്മേഷത്തിനും പ്രാധാന്യം കൊടുത്തു കൊണ്ട് തന്നെ മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്